എൻ്റെ പ്രദേശത്തെ വിനോദ വ്യവസായങ്ങൾ എന്ന് പറയുന്നത് എണ്ണം പറഞ്ഞു നിർത്തിയാൽ തീരാത്ത അത്രയും അധികമുണ്ട് പൂക്കോടു തടാകം എടക്കൽ ഗുഹ ബാണാസുര കുറുവ ദ്വീപ് ജെയിൻ ടെംപിൾ തിരുനെല്ലി അമ്പലം ബ്രഹ്മഗിരി മല കുറുമ്പാല കോട്ട തുടങ്ങിയ ഒരുപാട് വിനോദ കേന്ദ്രങ്ങളുണ്ട് ആളുകൾ പൊതുവേ കാണാൻ ആഗ്രഹിക്കുന്നത് വ്യത്യസ്തവും ആകർഷണവും ഏറിയ കാഴ്ചകളെയാണ് സമീപ വർഷങ്ങളിൽ ഈ വിനോദ വ്യവസായ കേന്ദ്രങ്ങൾക്ക് ഒരുപാട് മാറ്റം വന്നിരിക്കുന്നു ചിലത് മനുഷ്യ നിർമ്മിതികളാൽ ഉയർച്ച കൈവരിച്ചപ്പോൾ മറ്റു ചിലത് മനുഷ്യരുടെ പ്രവർത്തികളാലും പ്രകൃതിയുടെയും കാലാവസ്ഥയുടെയും മാറ്റത്താലും പ്രളയം പോലുള്ള പ്രകൃതി ക്ഷോഭം മൂലവും താഴ്ചയിലേക്ക് കൂപ്പുകുത്തുകയാണ് ചെയ്തത്